ഞാന് കോളേ കോളേജില് പഠിക്കുന്ന ടൈമില് ഞങ്ങളെല്ലാവരും കൂടി ഒര് അഞ്ചാറ് സ്ഥലങ്ങള് ടൂറ് പോയിരുന്നു അത് കന്യാകുമാരി കൊടൈക്കനാല് മധുര മൂന്നാറ് പിന്നേ തിരുവനന്തപുരം അതിലൊക്കെ പോയിരുന്നു അപ്പോൾ അതില് കന്യാകുമാരിയിൽ പോയി സണ് സണ് സൂര്യാസ്തമയം കണ്ടു പിന്നേ വി വിവേകാനന്ദപ്പാറ അപ്പോൾ അപ്പം ആ ടൈമില് ഭയങ്കര കടല് ക്ഷോഭത്തിന്റെ ടൈമായിരുന്നു കടല് കടല് ഭയങ്കര ഇതായിരിക്കുന്ന ടൈമാണ് അതുകൊണ്ട് വിവേകാനന്ദപ്പാറയില് കേറാൻ കഴിഞ്ഞില്ല് അവിടെപ്പോയി സൂര്യാസ്തമയമൊക്കെ കണ്ട് കുറേ സമയം ചെലവഴിച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടുന്ന് പോന്നു പിന്നേ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് പോയിരുന്നു പിന്നെ ശംഖുമുഖത്ത് പോയിരുന്നു പിന്നേ ആ ആദ്യം പിന്നെ മൂ മൂന്നാറ് പോയിരുന്നു മൂന്നാറ് നല്ല തണുപ്പായിരുന്നു വരയാടിനെ ഒക്കെ കണ്ടിരുന്നു മൂന്നാ വര ഇര ഇരവികുളം അവിടെ പോയി വര വരയാടിനെ ഒക്കെ കണ്ടിരുന്നു പിന്നേ മധുര മധുര മീനാക്ഷി ടെംപിളിൽ പോയിരുന്നു അവിടെ ആ ടൈമില് പെയ്റ്റിങ്ങായിരുന്നു അവിടെ ഒക്കെ മൂടി വെച്ചായിരുന്നു അങ്ങനെ ഓല കൊണ്ട് മൂടിവെച്ചായിരുന്നു കാണാൻ പറ്റിയില്ല അതൊക്കെ നല്ല ഒരു അടിപൊളി യാത്രയായിരുന്നു